സ്കൂളുകളിൽ ൻ്റെ സ്കൂളുകളിൽ നിരവധി നിരവധി പാഠ്യേതര പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അതായത് സർക്കാർ സ്കൂളുകൾ അല്ലെങ്കിൽ പ്രാദേശിക സ്കൂളുകൾ ആണെങ്കിൽ അതിൻ്റെതായ ആക്ടിവിറ്റിസായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതായത് ഓട്ടമത്സരം ഓട്ടം ചാട്ടം അതു കൂട്ടുള്ള മത്സരങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതേസമയം പ്രൈവറ്റ് സ്കൂളുകളിൽ വരുവാന്നെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു ഹൈടെക് ലെവലിൽ ആയിരിക്കും അതായത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് തരത്തിലായിരിക്കും ഇത് മത്സരങ്ങൾ സംഘടിപ്പിക്കണത് പിന്നെ ഇത് ഇതിന് ഒക്കെ സമ്മാനം എങ്ങനാന്ന് ചോദിച്ചാൽ പ്രാദേശിക സ്കൂളുകളിൽ ഞാൻ ഞാൻ പ്രാദേശിക സ്കൂളുകളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ അല്ല പഠിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്നിട്ട് കയറി കൃത്യമായ വിവരമില്ല എന്നാൽ എന്നാൽ തന്നെ ചെറിയ തോതിൽ സമ്മാനങ്ങൾക്ക് ഇവിടെ ഈ ഇതിന് ഇപ്പോൾ ഈ ഈ മത്സരങ്ങളിൽ ജയിക്കുവാണെങ്കിൽ സമ്മാനം കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സമ്മാനം കൊടുക്കും ജയിച്ചാൽ സമ്മാനം കൊടുക്കണം അല്ലോ അതേസമയം പ്രൈവറ്റ് സ്കൂളുകളാണേൽ മത്സരിച്ചാൽ മാത്രമല്ല ഇപ്പം ജസ്റ്റ് ഇപ്പം പങ്കെടുത്തപ്പം തന്നെ പ്രോത്സാഹനം എന്ന രീതിൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റും അതുകൂട്ട് ഇതും തരുന്നതാണ് പിന്നെ ഞാൻ ഇതിലേതിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ നിരവധി ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഓട്ടമത്സരം റണ്ണിങ്ങ് അതുകൂട്ട് ഓരോരോ സാധനം ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് വട്ടം സമ്മാനം കിട്ടീട്ടും ഉണ്ട് അഞ്ചാം ക്ലാസ്സിലാന്ന് തോന്നുന്നു എനിക്ക് അഞ്ചാം ക്ലാസ്സിൽ എനിക്ക് ഓട്ടമത്സരത്തിന് ഫസ്റ്റ് കിട്ടിട്ടുണ്ട്